യെസ് കം ഇൻ അതെ പനി ആണോ ഓക്കെ ഇടവിട്ടുള്ള പനി ആണോ

ഇടവിട്ട് ഇടവിട്ടുള്ള പനി ആണോന്ന് അതെ ഓക്കെ തലവേദന ഉണ്ടോ അതെ ജലദോഷമോ

തൊണ്ടവേദന മേല് വേദന അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതെ ആവി പിടിക്കാറുണ്ടായിരുന്നോ നല്ല ചൂടുവെള്ളത്തിൽ ആവി പിടിക്ക് പിന്നെ ഞാൻ രണ്ട് മെഡിസിൻസ് എന്തായാലും പ്രീസ്ക്രൈബ് ചെയ്യാം അത് വാങ്ങിച്ച് അത് എന്തായാലും കഴിക്ക് കംപൽസറി ആയിട്ട് റസ്റ്റ് എടുക്കണം മേലെ ഇത് അത്യാവശ്യം ഇപ്പോൾ എല്ലാർക്കും വൈറൽ ഫീവർ ആണ് അതിൻ്റെ ടൈം ആണ് നല്ലത് പോലെ റസ്റ്റ് എടുത്താലേ ഇത് മാറത്തുള്ളൂ നല്ലത് പോലെ വെള്ളം ഒക്കെ കുടിക്കണം വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഈ ടൈമിൽ റിസ്ക്ക് എടുക്കാൻ നിൽക്കരുത് അതുകൊണ്ട് നല്ലത് പോലെ വെള്ളം ഒക്കെ കുടിച്ച് റസ്റ്റ് ചെയ്യുക ഓക്കേ പിന്നെ ഫുഡും മര്യാദയ്ക്ക് കഴിക്കുക ഞാൻ എന്തായാലും ഇപ്പോൾ തലവേദനക്ക് ജലദോഷത്തിനുള്ളൊരു ടാബ് എഴുതുന്നുണ്ട് മൂന്ന് ദിവസം ടാബ് കഴിക്ക് ടാബ് കഴിച്ച് കുറയുന്നുണ്ടോ നോക്കിയിട്ട് കുറഞ്ഞില്ലെ പിറ്റേ ദിവസം വാ അതെ വരണം ഇല്ല ഇല്ല അതെ ഓക്കെ കുറഞ്ഞില്ലേൽ വാ കേട്ടോ അതെ ഓക്കെ അതെ ഓക്കെ